ഞങ്ങള് പോയ വണ്ടിയുടെ അവസ്ഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ദയനീയമായിരുന്നു കരണമെന്താന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റിത്തെ കാര്യം നമ്മടെ സീറ്റുകളാണ് സീറ്റുകള് വളരേ മോശമായിരുന്നു കാരണം പകുതി കീറിയിട്ടു ഇരിക്കുകയായിരുന്നു കുറെയെല്ലാം നന്നായിട്ട് കീറിയിരിക്കുകയായിരുന്നു അതേപോലെ വണ്ടീൻ്റെ പവറ് വളരെ മോശമായിരുന്നു അതായത് എന്തോ ബാക്കോട്ട് ഒരു വലിവ് പോലെ അങ്ങനെയൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ വണ്ടിക്കെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ബ്രേക്ക് തീരേയും ഇല്ലായിരുന്നു നമ്മള് പിടിക്കുന്ന അതെ സ്ഥാനത്ത് വണ്ടി നില്ക്കുന്നതേയില്ല അതേപോലെ പോയകാര്യങ്ങള് പിന്നെ ഡ്രൈവർ ഡ്രൈവർ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഡ്രൈവറിൻ്റെ കാര്യം വളരെ മോശമായിരുന്നു ഡ്രൈവറ് പോയ അതായത് നമ്മളെ മാന്യമായ രീതിയിലല്ല കൊണ്ടുപോയത് പോകുന്ന വഴിമൊത്തം അതിലെ ഇതിലെ ഇങ്ങനെ ജസ്റ്റ് ഒരുമാതിരി ഒരു തമാശകളിപോലെയാണ് സീരിയസ്നെസ്സ് ഇല്ലായിരുന്നു വണ്ടി ഓടിക്കുന്നൊരു കാര്യത്തില് പിന്നെ വണ്ടി കുറേനേരം കേടായിട്ട് റോഡിൽ കിടന്നു അതിന് ഒരു മാറ്റിയിടാനുള്ള ടയർ മാറ്റിയിടാനുള്ള സ്റ്റെപ്പിനിപോലും വണ്ടിയിലുണ്ടായിരുന്നില്ല മൊത്തം കേടായിട്ട് കിടക്കുവായിരുന്നു വണ്ടീല് വണ്ടിയിണ്ടായിരുന്നത് മൊത്തം കേടായി കിടക്കുവായിരുന്നു അതേപോലെ വണ്ടിക്ക് ഹോണില്ല ഹോൺ തീരെയും വർക്കിങ് ആവുന്നില്ല ശബ്ദം പോലും കേക്കാനില്ലായിരുന്നു ഹോൺ ഉണ്ടെന്നു പോലും നമുക്ക് അറിയാൻപറ്റത്തില്ലായിരുന്നു പിന്നെന്താ പറയുക എന്താണ് അതുതന്നെ വണ്ടീൻ്റെ പവറിനെക്കുറിച്ച് സീറ്റ് വളരേയധികം മോശമായിരുന്നു നമുക്ക് ഇരിക്കാൻ പാകത്തിനു നമ്മളടുത്ത് പറഞ്ഞ ആ ഒരു എന്താ എന്താ പറയുക ഫെസിലിറ്റേഷനൊന്നും ആ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നില്ല